ഞാൻ ഞാൻ പണ്ട് കാലം മുതലേ അടുപ്പിൽ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് എനിക്ക് ഇഷ്ടം അതായത് അഴ അടുപ്പ് കത്തിച്ച് വെക്കുന്ന കറികൾക്കും ചോറിനും പ്രത്യേക ഒരു ടെയിസ്റ്റാണ് മൺ പാത്രത്തിൽ പാകം ചെയ്യുന്നതാണെങ്കിൽ ഗ്യാസ്സിൽ വെക്കുന്നേനാക്കാളും നല്ല ടേയ്സ്റ്റാരിക്കും ഇപ്പോൾ നമുക്ക് സമയക്കുറവ് കാരണം നമ്മൾ അത്യാവശ്യം ഇത് മാത്രം ചോറ് മാത്രം നമ്മൾ അടുപ്പില് വെ അടുപ്പ് കത്തിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് ബാക്കി ഉള്ളതെല്ലാം ബാക്കി ചായ കാപ്പി പിന്നെ ത് ചോറിനുള്ള കറികൾ ഇതെല്ലം അ നമ്മൾ ഗ്യാസ്സ് ഗ്യാസ്സ് കത്തിച്ചാണ് പാചകം ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് സമയക്കുറവ് കാരണമാണ് ഇത് വേണ്ടി വരുന്നത് ഏറ്റോം കൂട്തലിഷ്ടം

വിറക് ക കത്തിച്ച് ഇതാക്കുന്ന ഇതിൽ തന്നെ ആണ്

വിറക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നതും ചോറ് വെക്കുന്നതും എല്ലാം കറികളാണെങ്കിലും അതെ മൺ പാത്രത്തിലുണ്ടാക്കുന്ന അതേ വെക്കുന്ന കറിയ്ക്കാണ് കൂടുതൽ ടെയ്സ്റ്റ് ചോറും അങ്ങനെയാണ് മൺ പാത്രത്തിൽ ഇനി ഇൻടക്ഷൻ കുക്കറ് ഉപയോഗിക്കാറില്ല ഇത് ഗ്യാസ്സില്ലാകുമ്പോൾ നമുക്ക് ജോലികൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാന്പറ്റും അടുപ്പാണെങ്കിൽ നമുക്ക് കത്തിച്ച് തീ പിടിച്ച് കിട്ടാനക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് എവിടേങ്ങു പോകാനുള്ള അത്യാവശ്യത്തിനാണെങ്കിൽ നമുക്ക് മറ്റെ വിറകടുപ്പിൽ ഇതാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊക്കെ വെച്ച് നോക്കയാണെങ്കിൽ നമുക്ക് ഗ്യാസ്സടുപ്പാണ് നല്ലത് അരി ഇതാകുമ്പോഴ് നമുക്ക് അരി വിറക് അടുപ്പ് കത്തിച്ച് ഇതള്ള അടുപ്പിലാണെങ്കിൽ നമുക്ക് ചോറിനെയെല്ലാം വെള്ളം വെച്ചിട്ട് അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനിടേൽ കൂടി വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കും ഗ്യാസടുപ്പിലാണെങ്കിൽ അതുപോലെ പറ്റൂല്ലാ നമുക്ക് കൂക്കറിലക്കെ വെച്ച് കഴിഞ്ഞാൽ ചോറ് കൂടുതൽ വെന്ത് നാശമായി പോകും വിസിലിൻ്റെ ഇത് കൊണ്ട് തുറക്കാൻ കുക്കറ് ഒക്കെ ചീറ്റി അതിൻ്റെ വെള്ളം എല്ലാം പുറത്ത് കളയാം കളഞ്ഞു പോവും അപ്പോഴ് പിന്നെ കൂടുതൽ ചോറ് ചിലപ്പം കൂടുതൽ വെന്ത് പോയാൽ അത് വെള്ളം ഒഴിച്ചിളക്കി വാർത്തെടുക്കണം കുടുതൽ വെന്താൽ പച്ചവെള്ളം തണുത്താൽ തണുത്ത വെള്ളം ഒഴിച്ച് നമ്മളിത് ഇളക്കി എടുക്കണം ഇളക്കി അങ്ങനെ ചോറ് വാർത്തെടുക്കണം വെൻന്തത് കുറഞ്ഞ് പോയാൽ പ്രത്യേകം വെള്ളം തിളപ്പിച്ചെടുത്ത് അതിലൊഴിച്ച് ഇളക്കീട്ട് അങ്ങനെ വാർത്തെടുക്കണം

അങ്ങനെ ചോ ചോറങ്ങനെ വെക്ക് വെക്കും അടുപ്പിലാകുമ്പം ആ ഒരു ഇതൊന്നും വരുന്നില്ല മൺ പാത്രത്തിൽ വെക്കുന്ന ഈ കറിക്ക് മണ്ണിൻ്റെ ഒരു മണം വന്ന് കഴിയുമ്പം പ്ര്യത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഗ്യാസ്സടുപ്പിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് മൺ പാത്രത്തിൽ വെച്ചാലും ബാക്കി ഉള്ള സ്തീൽ പാത്രത്തിൽ അലൂമിനിയം പാത്രത്തിൽ വെച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് മൺ പാത്രത്തിൽ വെക്കണം ഇത് അടുപ്പിൽ വെക്കുന്ന ഇതിനെ നല്ല ഇത് പണ്ട് കാലം മുതലേ പണ്ട് കാലത്ത് വിറക് വിറകടുപ്പ് മാത്രമേ ഉള്ളുവായിരുന്നു ഗ്യാസ്സും ഇതൊന്നും ഇല്ലായിരുന്നു ഗ്യാസ്സും സ്ററൗവൊന്നും ഇല്ലായിരുന്നു അപ്പം ഒട്ടു മിക്ക എല്ലാ വീട്ടുകാരും വിറക് കത്തിച്ചാണ് എല്ലാ ഭക്ഷണങ്ങളും പാകം ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ കുറെ കാലത്തിനിപ്പറം നമുക്ക് ഗ്യാസ് കണക്ഷനും അതുപോലെ സ്റ്റ ഗ്യാ സ്ററൗവ്വും ഇൻഡക്ഷൻ കുക്കറ് ഇങ്ങനെ ഉള്ളതെല്ലാം ഉപയോഗത്തിൽ വന്ന് തുടങ്ങിയ ശേഷം ആൾക്കാർക്ക് ജോലി തിരക്കും അതെല്ലാം കാരണം ഇതക്കെ പ്രചാരത്തിൽ വന്ന ശേഷം ഇതാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എളുപ്പവും സമയക്കുറവും ഇത് സമയക്കുറവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതാണ് നല്ലത് ഗ്യാസ്സിലുള്ള ഇത് അല്ലാതെയാണെങ്കിൽ രുചിക്കാണെങ്കിൽ വിറകടുപ്പിൽ വെക്കുന്ന പാചകമാണ്